ജൈവ കൃഷി വിജകരമായി ചെയ്യാൻ നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട് ജൈവ വളങ്ങൾ വിവിധ തരം ജൈവ വളങ്ങൾ ഉപയോഗിക്കുക കന്നുകാലി ചാണകം കന്നുകാലിയുടെ ചാണകം നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ചാണകം പുളിപ്പിച്ചൊഴിക്കാം പിന്നെ പച്ചില വളങ്ങൾ പച്ചിലകൾ നമ്മൾ ശേഖരിച്ച് വെള്ളത്തിലിട്ട് ചീയിച്ച് അത് പിന്നെ അരിച്ചെടുത്ത് അത് ഡൈല്യൂട്ട് ചെയ്ത് കുറച്ച് എടുത്തിട്ട് ഡൈലൂട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലൊഴിച്ചിട്ട് അതിനെ ചുവട്ടിലൊഴിച്ച് കൊടുക്കാം സ്പ്രേയും ചെയ്യാം തളിച്ച് കൊടുക്കാം പിന്നെ കമ്പോസ്റ്റ് വളം കരിയിലകൾ ചപ്പ് ചവറുകൾ എല്ലാം ശേഖരിച്ച് കൂട്ടി ഒരു കുഴിതാഴ്ത്തി അതിനകത്തിട്ട് കുറച്ച് മണ്ണും ഒക്കെയിട്ട് പൊതഞ്ഞ് മൂടിയിടുക ദിവസങ്ങൾക്കു ശേഷം അത് ശേഖരിച്ച് നമുക്ക് ജൈവ വളമായിട്ടുപയോഗിക്കാം പിന്നെ മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് ജൈവ വളമായിട്ട് ഉപയോഗിക്കാം കീടങ്ങളെ തുരത്താനാണ് വിവിധ തരത്തിലുള്ള കെണികളുണ്ട് വെളിച്ചക്കെണികളുണ്ട് പിന്നെ പല രീതിയിലുള്ള മറ്റു മാർഗ്ഗങ്ങൾ മറ്റു മാർഗ്ഗങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നീറേക്കേറ്റി വിട്ട് ചില കീടങ്ങളെ നശിപ്പിക്കാം പിന്നെ വിവിധങ്ങളായ വിവിധങ്ങളായ കെണികൾ രാത്രിയിൽ വെളിച്ചം അങ്ങനെയൊക്കെ വെച്ച് പിടിക്കാം പിന്നെ പേപ്പർ കെണികളുണ്ട് അത് വെച്ച് നമുക്ക് പിടിക്കാം ഈ രീതിയിലെല്ലാം ചെയ്താൽ കെണികൾ ജൈവ രീതിയിൽ നല്ല വിളവ് നമുക്ക് എടുക്കാം